ഹലോ ഞാന് കുറെ നേരമായിട്ട് ഈ ഡെലിവറിക്കാരനെ വിളിക്കുന്നു ഞങ്ങള് കുറച്ച് പിന്നെ രണ്ടു ബർഗറും ഒരു സാന്വിച്ചും ഒരു പിസയും ഓര്ഡര് ചെയ്യ്തിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് അവരു പറഞ്ഞു ഒരു മുക്കാൽ മണിക്കൂറിനുള്ളില് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു മുക്കാൽ മണിക്കൂര് കഴിഞ്ഞു മുക്കാൽ മണിക്കൂര് കഴിഞ്ഞിട്ട് ഞങ്ങള് അവരെ കാള് ചെയ്യാന് തുടങ്ങിയത് ഇത്ര നേരമായിട്ട് ഒരു റാസ്പോണ്ടു ചെയ്യ്തിട്ടില്ല ഇത്ര നേരമായിട്ടും ഒരു കാള് എടുത്തിട്ടില്ല കൊണ്ടു തരാന് പറ്റില്ലാന്നുണ്ടെങ്കില് നമ്മളോട് സാമാന്യ മരൃാദ കൊണ്ട് തരാന് പറ്റില്ല മാം വിളിച്ചു പറയുകയാണേൽ കുഴപ്പമില്ല ഇത്ര നേരമായിട്ടും ഞങ്ങള് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഞങ്ങള്ക്കു വേറെ എവിടെയെങ്കിലും ബുക്ക് ചെയ്താൽ മതിയല്ലോ നിങ്ങള് എന്നാല് അവരെ ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്കൂ ഇങ്ങനെയാണോ ഒരു സ്ഥാപനത്തില് ഇങ്ങനെയാണോ വേറൊരു ആള്ക്ക് സേവനം ഇതാക്കുന്നത് നമ്മള് കൃാഷ് തന്നിട്ടാണല്ലോ എല്ലാം ചെയ്യുന്നത് പിന്നെ അവര്ക്ക് അത് ചെയ്യാന് പറ്റില്ലെങ്കില് ഇല്ല എന്ന് പറഞ്ഞാല് പോരെ ഈ കാേള് എടുക്കാതെ എത്ര നേരമായി എന്നറിയാമോ വിളിക്കുന്നു എന്താ നിങ്ങള് ഒന്ന് പറയണം